കോഴികളെ നല്ല രീതിക്ക് സംസ്കരണശാലകളിൽ അല്ലെങ്കിൽ വിവിധ വിതരണശാലകളിൽ എത്തിക്കാൻ ഭയങ്കര ദുഷ്കരമാണ്

പല സ്ഥലങ്ങളിലും കോഴികളെ വളരെ തിക്കിത്തിരച്ച് അതിൻറ്റെ മേലെ ഒരുപാട് ഭാരം വരുന്ന രീതിക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് പലകോഴികളും ചത്തു പോകാറ് പതിവാണ് എന്നാൽ നല്ല വായു സഞ്ചാരമുള്ള നിറയെ സ്ഥലമുള്ള ഒരു വിധത്തിലാണ് അവയെ കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ അവ നല്ല ആരോഗ്യപരമായി തന്നെ ഇരിക്കുന്നതാണ് അതിനായ് നമുക്കുവേണ്ടത് നാം അതിനുവേണ്ടി പ്രത്യേകതരമായി ഉണ്ടാക്കിയെടുത്ത വണ്ടികളാണ് തട്ടുതട്ടുകളായി സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കോഴികളെ വയ്ക്കുന്നതു മൂലം അതിന് ഒന്നിന് മറ്റൊന്നിൻറ്റെ ഭാരം താങ്ങണ്ടി വരികയില്ല ആവശ്യത്തിലധികം വായു സഞ്ചാരവും സ്ഥലവും ലഭിക്കുന്നതാണ് അതിലൂടെ കോഴികൾക്ക് വളരെ ആരോഗ്യവാനായി തന്നെ ഇരിക്കാവുന്നത് ആണ്